ആ ചേട്ടാ നമുക്ക് ഒന്ന് രണ്ട് തൈ വേണമായിരുന്നു തെങ്ങിൻ്റെ നമുക്ക് ഇപ്പോൾ ഒരു ആറ് മാസം കൊണ്ടൊക്കെ കായ്ക്കുന്ന വല്ല തെങ്ങ് തൈ ഉണ്ടോ ആ മൂന്ന് കൊല്ലമൊക്കെ എടുക്കും അല്ലെ ഇല്ല പുതിയ പുതിയ ബ്രീഡ് ഒക്കെ ഉണ്ടാവില്ലെ ആറ് മാസം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് തൈ ഒക്കെ ഉണ്ടാവുന്ന തെങ്ങ് മൂന്ന് കൊല്ലം ആകുമല്ലെ

ആ നമുക്ക് അപ്പോൾ ഏതൊക്കെ തെങ്ങിൻ തൈയാണ് ഉള്ളത് ആ ചെന്തെങ്ങ് ഉണ്ടല്ലെ ചെന്തെങ്ങ് നമുക്ക് നല്ല കായ് കിട്ടുമോ വെള്ളം ആ

ഉം ഉം ഉം

നമുക്ക് ഇപ്പോൾ ഒരേക്കർ സ്ഥലത്താണ് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്

ആ ആ പിന്നെ ആ അപ്പോൾ ഈ ഒരേക്കറ് നമുക്ക് ഇപ്പം എത്ര തെങ്ങ് തൈ വെക്കേണ്ടി വരും ഒരു മുന്നൂറ് തൈ വെക്കേണ്ടി വരുമോ

നമ്മള് ഈ തെങ്ങയെ ആദ്യമായിട്ട് വയ്ക്കുകയാണ് ആ ആ പിന്നെ ഇതാ തൈ വെച്ചതിന് ശേഷം പിന്നെ ആ ഇത് നമ്മള് തൈ വെച്ചതിന് ശേഷം പിന്നെ എങ്ങനെയാണ് വളം ഇടണ്ടത് അത് മൂന്ന് മാസം കൂടുമ്പം ഇട്ടാൽ മതിയോ

വെള്ളം നമ്മള് വാ വാട്ടർ കണക്ഷൻ മൊത്തം ഇടാൻ പറഞ്ഞതാണേ അതുപോലെ ഈ അണ്ണാനൊക്കെ വന്നിട്ട് ഈ തെങ്ങിൻ്റെ കുല കടിച്ച് ഓ കടി കടിക്കാണ്ടിരിക്കാൻ എന്താണ് ചെയ്യണ്ടത്

ഓ നമ്മള് നമ്മള് ഇപ്പോൾ നോക്കിയിട്ട് പോയിട്ട് ഇവിടിപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും തൈ ഉണ്ടാകുമോ എടുക്കാൻ

ആ നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ കുഴി ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്നാൽ ഓ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുഴി എല്ലം സെറ്റ് ആക്കിയിട്ട് വളം ഒക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ നമുക്ക് തൈ കൊണ്ട് അങ്ങനെ വയ്ക്കാം മറ്റേത് അവിടെ ഇവിടെ നിന്ന് എടുത്ത് അവിട വെച്ച് വീണ്ടും അവിടന്ന് എടുത്ത് കുഴി വെയ്ക്കുമ്പം കേട് വന്ന് പോയാലോ

എന്നാൽ അങ്ങനെ ചെയ്യാമല്ലെ ആ നല്ല ആരോഗ്യം ഉള്ള തൈ നോക്കി എടുത്ത് വെക്കണം അഡ്വാൻസ് വല്ലതും വേണോ തെങ്ങിന് ആ ശരി എന്നാൽ കൊടുത്ത് വിട്ടാൽ മതി